വീഡിയോ ഗേമുകൾ സമയം കൊല്ലികളാണ് എന്നുള്ളതുതന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ന് കുട്ടികൾക്ക് മാതാപിതാക്കൾ മൊബൈല് കൊടുത്ത് അല്ലെങ്കിൽ വീഡിയോ ഗെയ്മ് ഇട്ടു കൊടുത്തിട്ട് പിന്നെ സമയം കളയുന്ന ഒരു അല്ലെങ്കിൽ കുട്ടികളെ പിന്നെ അവരുടെതായ വഴിക്ക് വിടുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് കാരണം മാതാപിതാക്കൾക്ക് മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മൊബൈല് ഉപയോഗിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സമയം കണ്ടെത്താനുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വീഡിയോ ഗെയ്മ് കൊടുത്ത് അല്ലെങ്കിൽ റ്റി വി സീരിയൽ ഒക്കെ കാണാൻ വേണ്ടി മാതാപിതാക്കൾ കുട്ടികൾക്ക് വീഡിയോ ഗെയ്മ് ഓൺ ചെയ്ത് മൊബൈൽ കൊടുത്ത് വിടുന്ന ഒരു പ്രവണത നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് അത് എന്ന് പറയേണ്ടിവരും കാരണം ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ട് പല കുട്ടികളും അപകടകരമായ വീഡിയോ ഗെയ്മ് കാണുകയും ആ വീഡിയോ ഗെയ്മ് ങ്ങളിലുള്ള കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ട് ഇന്ന് ഒരു വയസ്സായ കൊച്ചിനുപോലും മാതാപിതാക്കൾ മൊബൈൽ കൊടുത്ത് വീഡിയോ ഗെയ്മ് ഇട്ടുകൊടുക്കുന്ന പ്രവണത പിന്നീട് കുട്ടി അതിന് അഡിക്റ്റ് ആയി മാറുകയാ അഡിക്റ്റ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ദൂഷ്യഫലങ്ങളിലേക്ക് ആ കുട്ടിയെ കൊണ്ടുചെന്നെത്തിക്കും പിന്നീട് കുട്ടിക്ക് ഏത് സമയവും ആ വീഡിയോ ഗെയ്മ് കണ്ടുകൊണ്ടിരിക്കണം അവൻ്റെ പഠനത്തിൽ അവന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവൻ്റെ പഠനം മുടങ്ങുന്നു അവന് പഠിക്കാൻ താല്പര്യമില്ലാതെ വരുന്നു അതുപോലെത്തന്നെ വീട്ടിലെ മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടുവരുന്നത് കുട്ടികൾ സ്വയം ആത്മഹത്യയിലേക്കുപോലും ഈ വീഡിയോ ഗെയ്മിൻ്റെ ഫലമായിട്ട് ചെന്നെത്തിപ്പെടുകയാണ് നിരവതി മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ വായിച്ച് വായിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഗെയ്മ് സമയം കൊല്ലികളാണ് എന്ന് മാത്രമല്ല അത് നമ്മുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുന്ന അവരുടെ ജീവൻതന്നെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് വീഡിയോ ഗെയ്മ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് ഏറ്റവും അത്യാവശ്യ കാര്യത്തി കൊടുക്കുകയും വീഡിയോ ഗെയ്മ്ഇന് അഡിക്റ്റ് ആകാതിരിക്കാനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാവി തന്നെ അവരുടെ ജീവിതം തന്നെ അപകടത്തിൽ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വീഡിയോ ഗെയ്മുകൾ കേവലം സമയംകൊല്ലികളാണെന്ന് മാത്രമല്ല ഇത് ജീവൻ കൊല്ലിയാണ് എന്നുകൂടെ പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു തലമുറയുടെ ഭാവിയെ തന്നെ ഒരുപക്ഷെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വീഡിയോ ഗെയ്മുകളിലൂടെ ഉണ്ടാകുന്നത് കാരണം ഇത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന അപകടകരമായ ഒട്ടേറെ വീഡിയോ ഗെയ്മുകൾ പ്രചാരത്തിലുണ്ട് കുട്ടികൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള വരുംവരായ്കളെ കുറിച്ച് ആലോചിക്കാനുള്ള പ്രായം കുട്ടികൾക്കില്ല അവർ ഇതിന് പെട്ടെന്ന് അടിമപ്പെടുകയും അതിലേക്ക് ഷ്ടരാവുകയും ചെയ്ത് അവരുടെ ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും അതുകൊണ്ട് അത് ഏറ്റോം അപകടകരമായ ഒന്നാണ് എന്ന് ആണെനിക്ക് പറയാനുള്ളത്